ആ പറഞ്ഞോളു ആ അതെയതെ ഇലക്ട്രീഷനാണ് ഇലക്ട്രീഷനാണ് ആ സ സാർ എനിക്ക് വി ക്ലാസ് ലൈസൻസുണ്ട് സാറെ അല്ലല്ലല്ല നമുക്ക് സ്വന്ത സ്വന്തമാണ് ബി ക്ലാസ് ലൈസൻസുണ്ട് സാറിനെന്താണ് ആവശ്യം ബി ക്ലാസ് ലൈസൻസ് സാറിന് പുതിയ കണക്ഷൻ എടുക്കാനാണോ ആ അത് ഉറപ്പായിട്ടും ഒറ ആ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും തരാം സാറേ ഈ നമുക്ക് അവൈലബിളായിട്ടുള്ള ബ മറ്റുള്ളവരേക്കാളും റേറ്റ് താത്ത് നമുക്ക് നല്ല രീതിയിൽ ഉത്തരവാദിത്വത്തോടു കൂടി വീടിൻ്റെ വയറിങ് ചെയ്ത് തരും അതിൻ്റെ പിന്നെ ലൈസൻസ് വ് വ് പിന്നെ നമ്മുടെ പിന്നെ പ് കെ എസ് ഇ ബി യിൽ നിന്ന് അതിൻ്റെ പെർമിറ്റ് എല്ലാം റെഡിയാക്കി തരും എല്ലാ കാര്യങ്ങളും നമ്മൾ എ ടു ഇസഡ് നമ്മള് ചെയ്ത് തരും സാറേ സാറിൻ്റെ പേര് എങ്ങനെ ആയിരുന്നു ആ ശരി ശരി എനിക്കറിയാവുന്ന ആളാണെന്ന് തോന്നുന്നു ഞാന് കേട്ടിട്ടുണ്ട് ഈ പേര് ഇപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞ് സാറേ പതിനൊന്ന് പത്തായി കാണും

ഇല്ല ഇല്ല ഇല്ല നമ്മള് നമ്മള് നമ്മള് ചെയ്യുന്നത് ലെഗ്രാൻഡ് ബ് അല്ലെങ്കിൽ ക്രാബ്ട്രീ ഈ എം കെ തുടങ്ങിയ ബ്രാൻഡഡ് ഐറ്റങ്ങളാണ് നമ്മള് ചെയ്യുന്നത് അതിനകത്ത് നമ്മള് ലെഗ്രാൻഡാണ് കൂടുതൽ പ്രിഫെറ് ചെയ്യുന്നത് കുറച്ച് നല്ലത് അത് തന്നെയാണ് വയറുകളെല്ലാം നമ്മള് വ് പിന്നെ ആർ ആർ കേബിളാണ് ഉപയോഗിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കില് വേറെ കേബിളുകൾ ഉപയോഗിക്കാം വി ഗാർഡിൻ്റെ കേ കേബിള് ഉപയോഗിക്കാൻ പറ്റും ഫിനോലെക്സിൻ്റെ കേബിള് ഉപയോഗിക്കുന്നുണ്ട് അത് അതിനനുസരിച്ച് കേബിളൊക്കെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് റേറ്റിനകത്തൊക്കെ ചെറിയ വ്യത്യാസങ്ങള് വരും അത്രയും ഉള്ളൂ ആ കൊട്ടേഷൻ തരാം കൊട്ടേഷൻ തരാം ഈ മൂന്ന് തര തരത്തിലുള്ള കേബിളുകൾ ഇട്ട് ഉള്ള കൊട്ടേഷൻ തരാം അത്പോലെ സ്വിച്ചുകളെല്ലാം ലെഗ്രാൻഡിൻ്റെ സ്വിച്ചുകൾ തന്നെ വെക്കാം പിന്നെ പേർളി ക്യാമ്പിൻ്റെ ഇ എൽ സി ബി യും എ എം സി ബി അങ്ങനെ ഒക്കെ ഉള്ള സാധനങ്ങളും പേർളി ക്യാബ് തന്നെ ചെയ്യാം പിന്നേ ബാക്കി വ പിന്നെ വയറിങ് പിന്നെ കോൺട്യൂട്ട് ഒക്കെ നല്ല ഏജ് ഉള്ള ട്വൻറ്റി എം എം മിൻ്റെ കോൺട്യൂട്ട് അങ്ങനെ ആയിരിക്കും ഉപയോഗിക്കുന്നത് കോൺട്യൂട്ട് ആണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ ഓ പിന്നെ ഓസ് ഉപയോഗിക്കത്തില്ല കോൺട്യൂട്ട് അതായത് പൈപ്പ് പോലുള്ള സാധനങ്ങൾ പിന്നെ വലിയ ബെൻഡുകള് എല്ലാം ബ് നമ്മള് പിന്നെ ബിൽറ്റ് ചെയ്യുകയാണ് അത്കൊണ്ട് നമ്മള് പിന്നെ ബെൻഡുകളൊക്കെ ആവശ്യത്തിനനുസരിച്ച് ബെൻഡ് ചെയ്ത് അത്ചെയ്യുന്ന സംവിധാനമാണ് നമ്മള് ചെയ്യുന്നത് ആ എ എന്താ സാറേ ആ ത്രീ ഫേസ് ത്രീ ഫേസ് സാറേ ശെരിക്കും ത്രീ ഫേസ് കണക്ഷന് ഇപ്പം നമ്മുടെ ഇപ്പഴത്തെ ഈ വേം ഇതൊക്കെ

ആ ആ ഓക്കെ ഓക്കെ അങ്ങനെ എല്ലാ മുറിയിലും ഏ സി വെക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ത്രീ ഫേസ് കണക്ഷൻ തന്നെ എടുക്കാം ഓക്കെ